ഒരു ചിത്രം വരയ്ക്കുന്നതിനായി ഞാൻ എടുക്കുന്ന പ്രക്രിയകൾ എന്നുപറയുമ്പോള് അത് ചിത്രത്തിൻ്റെ ഉറവിടം അനുസരിച്ചിരിക്കും ഇപ്പോള് ഞാൻ എൻ്റെ മനസ്സിൽ തന്നെ വിചാരിച്ച് ഉണ്ടാക്കിയൊരു ചിത്രമാണ് വരച്ചെടുക്കാൻ ശ്രമിക്കുന്നതെങ്കിൽ ആദ്യം ഞാനൊരു കുറച്ചു സമയം ചിത്രത്തെ മൊത്തത്തില് എൻ്റെ മനസ്സിലതിനെ ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കും അപ്പോള് ആദ്യമെൻ്റെ മനസ്സിൽ ഞാനീ മൊത്തം ഇമേജ് അതായത് ഈ ചിത്ര ത്തിനെ നോക്കിക്കഴിഞ്ഞാൽ അതില്നിന്ന് പിന്നെ ഞാൻ വരച്ചുതുടങ്ങുകയായി അപ്പോള് ഞാൻ ഏതെങ്കിലും ഒരു വശത്തുനിന്നാണ് വരച്ചുതുടങ്ങാറ് ഓരോ ആളുകളും ഓരോ രീതിയിലാണ് ചെയ്യാറ് ഇപ്പോള് ഞാൻ ഏതെങ്കിലും ഒരു സൈഡില്നിന്ന് വരച്ചുതുടങ്ങി പിന്നെ മൊത്തം കമ്പ്ലീറ്റ് ആക്കുകയാണു ചെയ്യാറ് പിന്നെ ഞാൻ ഇത് വരയ്ക്കുന്നതിന് എളുപ്പത്തിന് വേണ്ടി ഗ്രിഡ് ലൈൻസ് വരച്ചുവയ്ക്കുന്ന ഒരു ശീലം ഉണ്ടെനിക്ക് അപ്പോള് ആദ്യം പടത്തിനെ എൻ്റെ മനസ്സിൽ കണ്ടിട്ട് അതനുസരിച്ച് ഞാൻ ഒരു വേണ്ട വലിപ്പത്തില് ഗ്രിഡ് ലൈൻസ് വരയ്ക്കും എന്നിട്ട് അതിനെ ബേസ് ചെയ്തിട്ട് ഞാൻ ആദ്യം ആവശ്യമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അതിർത്തി നമ്മളെ പടത്തിലുള്ള എന്താണോ ഉള്ളത് അതിൻ്റെ അതിർത്തി പോലെയുള്ള കാര്യങ്ങൾ വരച്ച് വയ്ക്കും അതിന്റെ ബോഡേഴ്സ് ഒക്കെ എന്നിട്ട് അതുകഴിഞ്ഞിട്ട് ഞാൻ അതിലെ കൂടുതൽ ഡീറ്റെയ്ൽ ആയുള്ള കാര്യങ്ങൾ വരയ്ക്കും അങ്ങനെ ആണ് ചെയ്യാറ് പിന്നെ അതുകഴിഞ്ഞ് പെയിന്റ് ചെയ്യുന്ന കളര് വർണങ്ങള് കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ അത് കൊടുക്കും പിന്നെ ചിത്രം വരയ്ക്കാനായിട്ട് ഞാൻ ഓൺലൈൻ ഉറവിടങ്ങളെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രെഡിറ്റ് എന്നുപറഞ്ഞൊരു സമൂഹ മാധ്യമമുണ്ട് അപ്പോള് അതിലിങ്ങനെ ഒരുപാട് ചിത്രങ്ങളൊക്കെ വരുന്ന സബ് പ്രെഡിറ്റ് അങ്ങനത്തെ പേജുകളുണ്ട് ഞാനതില് ചിത്രങ്ങൾ നോക്കി വരയ്ക്കാറുണ്ട് പിന്നെ ഈ അടുത്ത് വരച്ചൊരു ചിത്രം എന്നുപറയുമ്പോള് ഞാൻ തന്നെ എടുത്തൊരു ഫോട്ടോ ഞാന് ഇവിടെനിന്ന് മൂന്നാറില് പോയപ്പോള് അവിടെ തേയിലത്തോട്ടങ്ങളുടെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ടായിരുന്നു അവിടെ എന്റെ ഒരു സുഹൃത്ത് നില്ക്കുന്നതിന്റെ ഫോട്ടോ അപ്പോള് ആ ഫോട്ടോ നോക്കി ആയിരുന്നു ഞാൻ ഈ അടുത്ത് വരച്ചത് അപ്പോള് ആദ്യമായി ഞാൻ ആ ഫോട്ടോ നോക്കി അതിലെ ഓരോ ഡീറ്റെയ്ൽസും മനസ്സിലാക്കി എടുത്ത് പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞപോലെ ഗ്രിഡ് ലൈൻസ് വരച്ച് അതില്നിന്ന് വരച്ചു തുടങ്ങുകയാണ് ചെയ്തത് അങ്ങനെയാണ് ഞാൻ ആ ചിത്രം വരച്ചുതീർത്തത്